ഹലോ ബിന്ദുവേച്ചിയെ എന്റെ പഴയ നമ്പറ് മാറ്റീട്ട് ഇപ്പം പുതിയ നമ്പറാക്കിയില്ലേ അപ്പം എന്റെ ഡിജി ലോക്കറിൽ ഉള്ള എന്റെ രേഖകളൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ പുതിയ നമ്പറിൽ അപ്ടുഡേറ്റ് ചെയ്യാന് പറ്റുമോ ഇങ്ങളെ മോൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നിട്ട് ഇങ്ങളങ്ങനെ ചെയ്തില്ലായിരുന്നോ അതെങ്ങനെയാണ് നിങ്ങൾ ചെയ്തത് എന്താ ഇപ്പം എന്തൊക്കെയാണ് അതിന് ചെയ്തത് പിന്നെ പിന്നെ എന്താണ് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ അറിയില്ല എന്റെ എല്ലാ ഇതും രേഖകളൊക്കെ കിടക്കുന്നത് പഴയ നമ്പറിലാണ് അപ്പം അത് എങ്ങനെയാണ് അപ്ടുഡേറ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളത് എനിക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ ഒന്നും ഇല്ല എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എങ്ങനെയാണ് അത് വീണ്ടെടുക്കുക എൻ്റെ രേഖകളൊക്കെ എങ്ങനെയാണ് കിട്ടുക അതൊക്കെ കിട്ടണം കിട്ടിയാലേ എനിക്ക് മുന്നോട്ട് പോവാൻ പറ്റുള്ളൂ ഓണ്ലൈനിൽ എന്തെങ്കിലും അതിനേക്കുറിച്ചുള്ള സെറ്റിങ്സ്സോ അങ്ങനെ സെറ്റിങ്ങ്സിലെന്തെങ്കിലും ചെയ്താൽ അത് വീണ്ടെടുക്കാന് കിട്ടുമോ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടത്